ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയി ആ ഗതാഗതത്തിന് ധാരാളം ഉപാധികളുണ്ട് അതിൽ ഏറ്റവും വലിയ ഗതാഗത ഉപാധി എന്നു പറയുന്നത് ഇന്ത്യയിൽ അത് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ തന്നെയാണ് ട്രെയിനാണ് ഏറ്റവും വലിയ ഗതാഗത ഉപാധി പിന്നേ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് പൊതുുമേഖല ട്രാൻസ്പോർട്ടുകളാണ് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് ടാക്സി കാറുണ്ട് ടാക്സി ഓട്ടോറിക്ഷളുണ്ട് ടാക്സി ഇപ്പം വന്നു ടാക്സി ബൈക്കുകൾ വരുന്നുണ്ട് അതൊന്നും കൂടാതെ ഇപ്പം നിലവിൽ കുറച്ചു പ്രൈവറ്റായിട്ട് ആൾക്കാർ കൈയടക്കി വച്ചിരിക്കുന്ന ഊബറ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇപ്പം പിന്നെ മോട്ടോർ ബൈക്കുകൾ വരെ ഒരു പൊതു മേഖല ഇപ്പം ആളുകൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ മോട്ടർബൈക്കുകളിൽ വരെ ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ട് ഏറ്റവും പ്രാധാനമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖല സ്ഥപനം എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയാണ് ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുൽ ആൾക്കാർ ഇരിക്കുന്നത് പൊതുമേഖല ഗവൺമെൻറ് ബസ്സുകളാണ് അത് കൂടാതെ ഗവൺമെൻറ് ബസ്സുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ ടാക്സികളെയാണ് ടാക്സികളിൽ ഏറ്റവും കൂടുതൽ ടാക്സി കാറുകൾ ടാക്സി ഓട്ടോറിക്ഷകൾ ഇപ്പം വന്നു ബൈക്കുകളെയും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ബൈക്കുകളിലും ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഊബറ് അതേപോല അതുപോലെയുള്ള കുറേ പ്രൈവറ്റ് ആൾക്കാർ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു അതിനുള്ള കുറച്ചു ഉപാധികളുണ്ട് ഇതിൽ ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോളെന്ന് വച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വച്ചു കഴിഞ്ഞാൽ ട്രെയിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അതുപോലെ ഏറ്റവും കൂടുതലാൾക്ക് സഹായിക്കുന്നത് ട്രെയിൻ തന്നെയാണെങ്കിലും അതിൽ നമുക്ക് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ മീൻസ് നമുക്ക് കിടന്നുറങ്ങി യാത്ര ചെയ്തു ഇപ്പം ഇന്ത്യയിൽ ഒരു അറ്റത്തു നിന്നും വേറൊരറ്റത്തേക്ക് പോകണമെങ്കിൽ മിനിമം നമുക്ക് റിസർവേഷൻ ചെയ്തിരിക്കണം സീറ്റ് നമക്ക് കിടന്നുറങ്ങിയൊക്കെ പോകണം ഇച്ചിരി വിശാലമായിട്ട് പോണന്നുണ്ടെങ്കി നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിരിക്കണം അങ്ങനെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിശാലമായിട്ട് പോകാൻ പറ്റുള്ളൂ വിശാലമായിട്ട് പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തു അതിന് കാശ് ചിലവും കൂടുതലാണ് ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാതെ പോകണമെങ്കിൽ കാശ് കുറവാണ് അതിന് അനുസരിച്ചു ബുദ്ധിമുട്ടുകളുണ്ട് ട്രെയിനിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ എന്നത് ഏറ്റവും നല്ല അഡ്വാൻറേജ് ഒരു ഗുണങ്ങളെന്ന് വച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും നമ്മുടെ ആവശ്യ കാര്യങ്ങളായ മലമൂത്ര വിസ്സർജനത്തിനും എല്ലാം പറ്റിയ സൗകര്യം ട്രെയിനുകളിലുണ്ട് അതരു ട്രെയിൻ്റെ ഒരു ഗുണമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ നമ്മൾക്കുള്ള വിനിമയ ഉപാധികളാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് അതിൽ ഏറ്റവും കൂടിയ കാര്യം എന്നു വച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗമാണ് ഇപ്പം മൊബൈൽ ഫോണൊന്ന് ചാർജ് ചെയ്യണമെങ്കിലും നമുക്ക് ട്രെയിൻ പോലെയുള്ള ഗതാഗതം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണ് അതേ സമയം വേറൊരു വാഹനത്തിൽ പോയിക്കഴിഞ്ഞാൽ റീചാർജിങ് അങ്ങനെയുള്ള കുറച്ചു പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇപ്പം വന്നു കാറുകളിലും എല്ലാത്തിലും ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും കാറുകളായാലും ഓട്ടോറിക്ഷകളായാലും അതിലെല്ലാം ചിലവ് വളരെ കൂടുതലാണ് ആൾക്കാർക്ക് പോകുന്നത് ഇതിൽ ട്രെയിനും പൊതുമേഖല ബസ്സുകളും ഗവൺമെൻറ് ബസ്സുകളും മാത്രമേ നമുക്ക് ഒരു പരിധി വരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റും പിന്നെ ഒരു പ്രശ്നം എന്നു വച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് മാർഗമുള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചില സമയത്ത് മീൻസ് റോഡുകളിൽ കുണ്ടും കുഴിയും കാരണം യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായിരുന്നാലും യാത്രകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ട്രെയിൻ തന്നെയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തി നിർത്തുകയാണ്